ആ നമ്മുടെ സൂപ്പർ മാർക്കെറ്റിൻ്റെ ഓണർ സാജൻചേട്ടനല്ലെ ആ ഞാൻ അവിടുത്തെ ഒരു സ്ഥിരം കസ്റ്റമറാണ് എൻ്റെ പേര് കുരിയാച്ചൻ എന്നാണ് ഓർമ വരുന്നുണ്ടോ ആ കഴിഞ്ഞ തവണ ഞാനൊരു ലാപ്ടോപ്പ് എടുത്തായിരുന്നു ഓഫറിൽ ആ അത് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു എടുത്തപ്പോൾ എനിക്കൊരു ചെറിയ ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു കാരണമെന്താണെന്ന് വെച്ചാൽ കമ്പനിയുടെ സർവീസിങ് കിട്ടുവോ അതുപോലെ തന്നെ ഇത് ഇതുക്കൂട്ട് പോലെ സെക്കൻഡ്സ് ആണോ ങേ എന്നൊക്കെയുള്ള ഒരു സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ യാതൊരു കുഴപ്പവും ഇല്ല ഇതുവരെ അത് ഭംഗിയായിട്ട് പോകുന്നു ആ പിന്നേ നമ്മുടെ ഈസ്റ്ററൊക്കെ വരികയല്ലെ ഇപ്പം എന്തെങ്കിലും ഓഫറുകളെ കുറിച്ചൊക്കെ അറിയാമോ എന്തൊക്കെ ആ ആഹ ആ ആ ആ ആ ആ ആ ഫോൺ ഫോൺ ഫ്രീ ആയിട്ടുണ്ടോ ഫോൺ ഒരെണ്ണം എടുത്താൽ ഒന്ന് ഫ്രീ ഉണ്ടോ ആ ആ ആ നല്ല കമ്പനി സാധനം ആ ആ നല്ല കമ്പനിയുടെ സാധനങ്ങളായിരിക്കില്ല ആയിരിക്കുമല്ലോ നല്ല കമ്പനി സാധനത്തിന് ഓഫർ ഉള്ള ഐറ്റംസുണ്ടല്ലോ അല്ലേ ങാ എനിക്ക് ആ ആ ആഹ് മ്മ് ആ ഹാ ഹാ ആഹ് മ്മ് മ്മ് ആ ആ എനിക്കെൻ്റെ ഫോണൊന്ന് മാറേണ്ടതായിട്ട് ഉണ്ട് ഇത് ഇപ്പം വളരെ ഹാങ്ങായിട്ടാണ് എൻ്റെ ഫോൺ പോകുന്നത് അതുകൊണ്ട് ഒരെണ്ണം മാറണം ആ

ആ പിന്നെ പലചരക്ക് സാധനങ്ങൾക്കൊക്കെ ഡിസ്കൗണ്ട് ഉണ്ടോ ആ ആ ഈ അടുത്ത നാളിൽ നല്ല ഓഫർ ഉള്ള ഐറ്റംസൊക്കെ ഉള്ള ദിവസങ്ങളിലൊന്ന് വിളിച്ചറിയിക്കാൻ മറക്കരുത് കേട്ടോ ആ ആ ആഹ് ഹാ ആ ആ ലാപ്പെടുത്തിട്ട് വേറെ കുഴപ്പം ഒന്നും ഇല്ല ആ അത് അത്രയും ഉള്ളു ഞാൻ ഞായറാഴ്ച് ഇറങ്ങുന്നുണ്ട് അന്നേരം ഓഫർ ഉള്ള സാധനങ്ങളൊക്കെ മേടിക്കാം അതിന് ശേഷം ഇപ്പം പ്രത്യേക ഈസ്റ്റർ ഓഫറുകളൊക്കെ വരുമ്പോൾ എന്നെ പ്രത്യേകമായിട്ടൊന്ന് വിളിച്ചറിയിക്കണം കേട്ടോ ആ അതുകൊണ്ടാണല്ലോ ഞാൻ സ്ഥിരമായിട്ട് അവിടുന്ന് തന്നെ സാധനങ്ങൾ വാങ്ങുന്നതിൻ്റെ രഹസ്യം ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് അങ്ങനെ ഉണ്ടാവും മ്മ് ആ ആ ആ ഓ ഓക്കെ ഓക്കെ ഓക്കെ ശരി എന്നാൽ ഓക്കെ